നമ്മുടെ പ്രദേശത്ത് അതായത് നമ്മുടെ ലോക്കൽ ഏരിയക്കെ നോക്കുകാണ്ന്ന് പറയുമ്പോൾ രാത്രി കിടത്തി ചികിൽസിക്കാൻ പറ്റിയ ആശുപത്രികള് കുറവാണ് കുറവാണെന്നല്ല തീരെ കുറവാണെന്ന് വേണമെങ്കി പറയാൻ പറ്റും അപ്പൊൾ അവർക്ക് മെഡിക്കലി ഇപ്പൊൾ രാത്രി ഹോസ്പിറ്റലുണ്ട് പക്ഷേ അവര് കിടത്തി ചികിത്സ കുറവാണ് അപ്പൊൾ രാത്രി ഇപ്പൊൾ ഗവൺമെൻറ്റ് ആണെങ്കിൽ ഡോക്ടർമാര് അടുത്ത് അടുത്തൊരു ഗവണ്മെൻറ്റ് ആശുപത്രീല് രാത്രി ഡോക്ടർമാര് എന്ന് പറയുമ്പോൾ ഒരു പത്തു പന്ത്രണ്ട് കിലോമീറ്റർ പോകണം പിന്നെയുള്ളത് പ്രൈവറ്റിലാണ് അവിടെയും രാത്രി നമുക്ക് സീരിയസ് ആയിട്ടുള്ള കേസുകള് വന്ന് കഴിഞ്ഞാൽ ഈ പറയണ പോലെ അവര് എന്താ പറയുക വലിയ മെഡിക്കൽ കോളേജ്കളിലേക്കോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്കോ റെഫർ ചെയ്യാനാണ് മെയിനായിട്ട് പറയാറ് അപ്പൊൾ എന്താ വച്ചു കഴിഞ്ഞാൽ അവിടെ അത്രയും അത്രക്കുള്ള സൗകര്യമുള്ളു കൂടുതലായിട്ട് വലിയ ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല അപ്പൊൾ നേഴ്സ്മാര് അല്ലെങ്കി ഡോക്ടർമാര് മെയിനായിട്ട് റെഫർ ചെയ്യണത് ഒന്നില്ലങ്കിൽ നമ്മുടെ ജില്ലാ പാലക്കാട് ജില്ലാ ആശുപത്രി അല്ലെങ്കി മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ്ലായിട്ടുള്ള കുറെ ഹോസ്പിറ്റൽ ഇപ്പൊ പാലാന തങ്കം അതുപോലത്തെ ഹോസ്പിറ്റലൊക്കെയാണ് അപ്പോൾ ഈ ഇതിൻറ്റെ പ്രശ്നന്താന്നു വച്ച് കഴിഞ്ഞാ അവര് അടിസ്ഥാനമായിട്ട് ഉള്ള ഈ നല്ല രീതിക്ക് ചികിൽസിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും ആശുപത്രികളിൽ ഇല്ലാന്നുള്ളത് തന്നെയാണ് ആശുപത്രികളിൽ മെയിനായിട്ടുള്ള പ്രശ്നം